ഞാന് ഇപ്പോൾ ഓർഡറ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ അതെ അതെ ഇപ്പോൾ ഇപ്പോൾ നിങ്ങള് കൊണ്ടുവരുന്ന സാധനം എൻ്റെയാണ് അപ്പോൾ നിങ്ങള് എവിടെത്തി എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നേ ആ വരുന്നതേ ഉള്ളു അല്ലെ കുറച്ച് വേഗം കൊണ്ടു വരികയാണെങ്കിൽ നന്നായിരുന്നു കാരണം സമയം ഇത്രയും ആയില്ലേ അപ്പോൾ എൻ്റെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് നല്ല രീതില് വിശക്കുന്നുണ്ടായിരുന്നു പറഞ്ഞ സാധനാമൊക്കെ എടുത്തിട്ടുണ്ടോ രണ്ട് ബിരിയാണിയും എട്ട് പൊറോട്ട പിന്നെ ബീഫ് കറി പിന്നൊരു മന്തി പിന്നൊരു അൽഫാം ക്വാട്ടറ് ക്വാട്ടറ് ആ പിന്നെ സ്പ്രൈറ്റ് രണ്ട് ലിറ്ററിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിലത് വേഗമൊന്ന് എത്തിക്ക് കെട്ടോ ഓക്കേ ഓക്കേ വേഗം വാ ഞാനിവിടെ തന്നെയുണ്ട് അതായത് നടക്കാവില്ലേ ആ അതിൻ്റെ അടുത്ത് തന്നെയുണ്ട് അവിടെ ഏതു എത്തുമ്പോൾ വിളിച്ചായി